ദിവസം മുഴുവൻ വെള്ളം ആവശ്യമുള്ള അതായത് വ്യത്യസ്ത ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ മോർണിംഗ് എണിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് തന്നെ നമുക്ക് വെള്ളം വേണം പിന്നെ ചിലരൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചിട്ടായിരുക്കും ചിലപ്പോൾ രാവിലെ അതായത് രാവിലെ പല്ലു തേക്കുന്നതിന് മുൻപേ വെള്ളം കുടിച്ചിട്ട് രാവിലെ എല്ലാവരും എണീക്കുന്നത് ചിലവരൊക്കെ എണീക്കുന്നത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പല്ലുതേക്കും പിന്നെ പല്ലു തേക്കാൻ നമുക്ക് വെള്ളം വേണം ബാത് റൂമിൽ അതായത് ബാത് റൂമിൽ പോകാൻ നമുക്ക് വെള്ളം വേണം കുളിക്കുന്ന രാവിലെ എണീറ്റ് കുളിക്കുന്നവർ ആണെങ്കിൽ കുളിക്കാൻ വെള്ളം വേണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെക്കാൻ വെള്ളം വേണം കറിവെക്കാൻ വെള്ളം വേണം നമ്മൾ രാവിലെ എല്ലാവരും ഒരു ഗ്ലാസ് കാപ്പി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കും അതിന് നമുക്ക് വെള്ളം വേണം പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ചോറ് കറി അങ്ങനെയുള്ള തോരന് അങ്ങനെ എല്ലാറ്റിനും നമുക്ക് വെള്ളം വേണം പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഒരു ദിവസം ഒരാൾ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒക്കെ കുടിക്കണം എന്ന് പറയും അതിന് നമുക്ക് വെള്ളം വേണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി വീട്ടിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി കഴുകാൻ നമുക്ക് വെള്ളം വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ഏതെങ്കിലും കടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ ദോശ പുട്ട് ഇഡലി അപ്പം വട അങ്ങനെ ഒരുപാട് കടികളുണ്ടല്ലോ രാവിലെ നമ്മൾ മോർണിംഗ് ബ്രേക്ക് ബ്രേക്ക് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന അപ്പോൾ അതിന് നമുക്ക് പിന്നെ വെള്ളം വേണം പിന്നെ നമ്മൾ രാത്രി പിന്നെ രാത്രി ചോറ് തിന്നണമെങ്കിൽ നമുക്ക് അതായത് ചോറ് ഉണ്ട് കൈ കഴുകണം എങ്കിൽ നമുക്ക് വെള്ളം വേണം പിന്നെ അങ്ങനെ എല്ലാ ആവശ്യത്തിനും നമുക്ക് ഇപ്പോൾ കാൽ കഴുകണം എവിടെയെങ്കിലും പോയി കാലിൽ ചെളി ചെളിയായിട്ട് അത് കഴുകണം എങ്കിൽ വെള്ളം വേണം വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റില്ല